ഹലോ നമസ്ക്കാരം മഹേഷ് സാറല്ലേ ആ ഞാൻ സ്റ്റല്ല ആണ് വിളിക്കുന്നത് തൃശ്ശൂർ പള്ളിമുന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് ആ പള്ളിമുന ആ അതെ അതെ ആ ഞങ്ങൾ വിളിക്കാം എന്ന് വച്ചാല് ഈ വരുന്ന പതിനാറാം തിയതി തിങ്കളാഴ്ച്ച ഞങ്ങക്കൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സ്ഥലം വരുന്നത് രാമവർമ്മ പുരം പോലീസ് അക്കാഡമി എന്നൊക്കെ പറയും അവിടെയാണ് എഞ്ചിനിയറിങ്ങ് കോളേജിന്റെ മെയിൻ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് എതിർ വശത്തായിട്ടാണ് വീട് വരുന്നത് ഫസ്റ്റ് വീടാണ് അതെ ആ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് കൽപ്പറ്റ കല്പറ്റയിലുള്ള ഒരു രാമദാസ് കോൺവെഷൻ സെന്ററിൽ വച്ചിട്ടാണ് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു

ആ ഞങ്ങൾ നാല് പേരുണ്ട് ഞങ്ങളുടെ കുടുംബ കുടുംബ തോട് കൂടിയിട്ടാണ് പോകുന്നത് നാല് പേര് അടങ്ങിയിട്ടുള്ള അതെ കുട്ടികളൊന്നുമില്ല മുതിർന്ന നാലു പേരാണുള്ളത് ആ ഞങ്ങൾക്ക് ഒരു രാവിലെ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പത്തേനും അവിടെ എത്തണം അപ്പോൾ എത്രയും നേരത്തെ പോകാൻ പറ്റുന്നോ അത്രയും നേരത്തെ ഞങ്ങൾ പോകാൻ റെഡിയാണ്

സ്ത്രീകൾ രണ്ട് പേര് ആണുങ്ങള് രണ്ട് പേര്

ഇല്ല ഇല്ല ഇല്ല ഇല്ല പ്രശ്നം ഇല്ല അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസായിട്ടുള്ള ആരും ഇല്ല എല്ലാവരും ഛർദ്ദി അങ്ങനെ വരുന്നവർ ആരുമില്ല ഓക്കേ ഓക്കേ ആ ഇവിടുന്നൊരു എത്ര മണിക്കൂറ് വേണ്ടി വരും അങ്ങോട്ട് യാത്ര ആണല്ലേ ആ അപ്പോൾ ഒരു പുലർച്ച ഒരു മൂന്നുമണി ഒക്കെ ആകുമ്പത്തേനും ഇറങ്ങിയാൽ മതിയാവില്ലേ ആ മൂന്ന് മണിക്കിറങ്ങാം അവിടൊരു ഒമ്പതരയുടെ മുന്നേ ഇറങ്ങിയാൽ മതി മെല്ലെ പോയാൽ മതി കുഴപ്പമൊന്നും ഇല്ല തിരിച്ചും ഇതേപോലെ തിരിച്ച് ഞങ്ങളെ വീട്ടിൽ എത്തിച്ച് തരണം ഈ നാല് പേരെ തന്നെ തിരിച്ചും ആക്കിത്തരണം അപ്പ ഈ പൈസയൊക്കെ വരുന്നത് ആ ആണോ ആ ഓക്കേ ഓക്കേ ആ അത് അപ്പം പറഞ്ഞാൽ മതി കുഴപ്പം ഒന്നും ഇല്ല ഓക്കേ ഓക്കേ അപ്പോൾ ഇത് ഒന്ന് ഉറപ്പിച്ചു കൊള്ളു പതിനാറാം തീയതി തിങ്കളാഴ്ച് ആ അതെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറില് തിരിച്ച് വിളിച്ചാൽ മത് സ്റ്റെല്ല എന്നാണ് പേര് ഓക്കേ ഓക്കേ താങ്ക് യു ഓക്കേ ശരി എങ്കിൽ താങ്ക് യു